യാത്ര ചെയ്യാൻ പല കാരണങ്ങളുണ്ട് ഇപ്പം നമ്മൾ അവരോ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് ഹോസ്പിറ്റലിലേക്ക് യാത്ര ചെയ്യേണ്ടി വരും നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് നമുക്ക് യാത്ര ചെയ്യേണ്ടി വരും പിന്നെ നമ്മൾ സന്തോഷത്തിന് വേണ്ടിയിട്ട് വിനോദ യാത്രകൾ ചെയ്യേണ്ടി വരും നമ്മൾ ബന്ധു വീടുകളൊക്കെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ യാത്ര ചെയ്യും അങ്ങനെ പല കാരണങ്ങളാണ് നമ്മുടെ യാത്രയ്ക്ക് സാധാരണ ഉണ്ടാവുക സ്ഥിരമായി നടത്തുന്ന ചില യാത്രകൾ എനിക്കുണ്ട് അതുകൊണ്ട് എൻ്റെ വിദ്യാഭ്യാസമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ ആഴ്ചയിൽ ഒരു ദിവസം പട്ടാമ്പിയിലേക്ക് ഒരു യാത്ര നടത്തും ഒരു രണ്ട് മണിക്കൂറിൻ്റെ യാത്രയാണ് അത് വളരെ ഞാൻ ആസ്വദിച്ച് ചെയ്യുന്ന യാത്രയാണ് പല രീതിയിലെനിക്ക് അവിടേക്ക് പോകാൻ കഴിയും ചില സമയങ്ങളിൽ പോകുന്ന സമയത്ത് ബസ്സിനും തിരിച്ച് വരുമ്പോൾ ട്രെയിനിനും അല്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിനിന് സഞ്ചരിക്കാറുണ്ട് ആ ട്രെയിനിനുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ ഭയങ്കര മനോഹരമായിട്ടുള്ള യാത്രകളാണ് പിന്നെ ഉള്ള യാത്രകൾ സുഹൃത്തുക്കളെ സന്ദർശിക്കാൻ ഞാൻ പോകാറുണ്ട് മനസ്സിന് വളരെ സന്തോഷം നൽകുന്ന യാത്രകൾ ആണ് അത് സുഹൃത്തുക്കളെ സന്തോഷി കാണാൻ പോവുക അങ്ങനെ ഒക്കെ പിന്നെ സുഹൃത്തുക്കൾ മൊത്തം യാത്ര ചെയ്യാറുണ്ട് വെറുതെ ചിലപ്പോൾ ബസ്സിന് കയറിയിട്ട് ഇങ്ങനെ തോന്നുന്ന സ്റ്റോപ്പുകൾ തോന്നുന്ന സ്ഥലങ്ങളിലേക്ക് അതൊക്കെ മനസ്സിനൊരു സന്തോഷം നൽകുന്ന രീതിക്കാണ് അത്തരം യാത്രകളൊക്കെ ഒരു ഒരു ആനന്ദം ഒരു നമ്മൾ ജോലിയൊക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ളൊരു ഒരു ബ്രേക്ക് അങ്ങനത്തെ രീതിക്കാണ് അത്തരം യാത്രകളിലൊക്കെ പിന്നെ ബന്ധു വീടുകളിൽ പോകുമ്പോൾ നമ്മൾ പ്രായമായ അമ്മമ്മ അമ്മച്ചിയമ്മ അവരെ ഒക്കെ നമുക്ക് കാണാൻ പറ്റും വളരെ സന്തോഷം നൽകുന്ന കാര്യമാണതൊക്കെ അവരോട് കുറച്ച് നേരം സംസാരിക്കുന്നത് പിന്നെ നടത്തുന്ന യാത്രകളാണ് ഈ പുണ്യ സ്ഥലങ്ങളിലേക്കുള്ള യാത്രകൾ അവിടെ നമുക്ക് മനസ്സിനൊരു സ്വസ്ഥതയും സമാധാനവും ഒരു ആശ്വാസമൊക്കെ കിട്ടും പിന്നെ ഉത്സവങ്ങൾ കാണാനൊക്കെ യാത്രകൾ പോവും സിനിമ കാണാൻ പോകുന്ന യാത്രകൾ പിന്നെ വെറുതെ ഒരു കാര്യവുമില്ലാതെ നടത്തുന്ന യാത്രകൾ അങ്ങനെ യാത്രകൾ നമുക്ക് പലതായിട്ട് ചെയ്യാം